ആ സാറില്ലെ ആ അതെ അതെ എനിക്ക് അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ടായിരുന്നു സാർ ഞാനെ എൻ്റെ എൻ്റെ മോൻ ഗോവിന്ദൻ്റെ അമ്മയാണ് അ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ടൂറ് പോകണം സാറെ നാട്ടിലോട്ട് അ അപ്പം അതിന് മോന് നാല് ദിവസത്തെ അവധി വേണമല്ലോ ഓ മോന് അവധി വേണം മോനേം കൂടെ കൊണ്ട് വേണം ടൂറ് പോകാൻ ഒരു പതിനഞ്ചാം തീയതിയോട് കൂടി പോകണം ഇല്ല ടൂറ് മാറ്റാനാവില്ല അതെൻ്റെ മകൻ എൻ്റെ അനിയൻ്റെ മകൻ്റെ കല്ല്യാണം ഉണ്ട് അപ്പം നാട്ടിൽ അവിടെ കുറച്ച് കുട്ടികളെ കാഴ്ചകളും കാണിക്കണം അപ്പം രണ്ടും കൂടെ ചേർത്താണ് അത്യാവശ്യമായിട്ട് പോവേണ്ടത് കാര്യം ഉണ്ട് അത്കൊണ്ടാണ് സാറിൻ്റടുത്ത് തന്നെ ഞാൻ തന്നെ വിളിച്ച് ചോദിക്കുന്നത് അതാണ് മോൻ്റെടുത്ത് പറഞ്ഞ് ചോദിക്കാതെ ഞാൻ വിളിക്കുന്നത് അത് സാർ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ ചെയ്ത് തരണം ഇത് നമുക്കൊരു നിവർത്തി അടുത്ത ആഴ്ച്ചയല്ലേ പക്ഷേ സാറ് എങ്ങനെയെങ്കിലും സാറ് വിചാരിച്ചാൽ നടക്കും അത്കൊണ്ടാണ് സാറിൻ്റെടുത്ത് തന്നെ പറയുന്നത് സാറ് വിചാരിച്ചാൽ നടക്കും അല്ല അത് സാ അത് അത് അത് ഞ അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സാറെ അതാണ് അത് സാറ് സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാ അല്ല എനിക്ക് ആ അത് സംസാരിച്ച് കൊള്ളാം എന്തായാലും സാറ് മനസ്സ് വെച്ചാൽ നടക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാറെന്താ എന്നാലും അത് സാറും കൂടെ ഒന്ന് വിചാരിക്കണം വിചാരിച്ചാലെ പറ്റു ഇത് വേണ്ണം അത്യാവശ്യ കാര്യം പെട്ടന്നായി പോയല്ലോ അപ്പോൾ പിന്നെ എന്ത് ടൂറ് മാത്രവല്ല സാറിന് അതല്ലെ ഞാൻ ആദ്യം പറഞ്ഞത് അനിയൻ്റെ മകൻ്റെ കല്ല്യാണം കൂടേണ്ട് അപ്പം അതും കൂടെ പങ്കെടുത്തിട്ട് വേണം ഒന്ന് അവിടെ അവിടം വരെ പോവുന്നത് കൊണ്ട് ഒന്നു കഴിച്ചിട്ട് വരാം എന്തായാലും സാറ് തന്നെ അത് വിചാരിക്കണം ആ അപ്പോൾ വരുമ്പോഴത്തേയ്ക്കും ഞാൻ വിളിക്കാം ആ ശരി ആ ആ ആ ആ എന്നാൽ വലിയ സന്തോഷമുണ്ട് ആണൊ ആ അപ്പം സന്തോഷവായി അപ്പോൾ പോയി പോയിട്ടക്കെ വരാം ടീച്ചറുവായിട്ട് ഞാൻ സംസാരിച്ചോളാം ഓക്കെ ശരി ഓക്കെ പറയാം